പൊതുവേ വാർത്തകൾ ഒരു പ്രാവശ്യമേ വായിക്കാറുള്ളു താല്പര്യം ഉള്ള വാർത്തകളാണെങ്കിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വായിക്കാറുണ്ട് അതെ വാർത്തകൾ തന്നെ മലയാളത്തിലെ ഹിന്ദിയിലെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിൽ നോക്കി വായിക്കാനും ആ വാർത്ത ശരി ആണോ എന്ന് ശരി ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും വേറെ വാർത്തകൾ വായിക്കാറുണ്ട് താല്പര്യമുള്ള കേസുകളില് പിന്നെ വാർത്തകള് കായിക വാർത്തകളിപ്പം നടക്കും ഇപ്പോൾ നാഷണൽ ഗെയിമ്സൊ ഒളിംപിക്സോ ഒക്കെ കാര്യങ്ങൾ നടക്കുവാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിക്കറ്റ് മാച്ചോക്കെ നടക്കുവാണെന്നുണ്ടെങ്കില് ന്യൂസ് വാർത്തകള് ആ കായിക വാർത്തകള് പ്രത്യേകം താല്പര്യടുത്ത് വായിച്ച് എടുത്ത് നോക്കി വായിക്കാറുണ്ട് പിന്നെ കൂടുതലും താല്പര്യമുള്ള വാർത്തയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് രാഷ്ട്രീയത്തിൽ അതീതമായ വാർത്തകളാണ് താല്പര്യം നമ്മൾക്ക് ഈ രാജ്യത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും എടുക്കുന്ന തീരുമാനങ്ങള് അവര് നടത്തുന്ന പുതിയ പുതിയ മൂവ്മെൻറ്റുകള് അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവരുന്ന പുതിയ പുതിയ നയങ്ങളൊക്കെ വായിക്കാനും അതിനെപ്പറ്റി അന്വേഷിക്കാനും അറിയാനുമൊക്കെ ഒത്തിരി താല്പര്യമുണ്ട് അതൊക്കെ വളരെ ഇൻറ്ററസ്റ്റായിട്ട് എല്ലാ ചാനലുകൾലും സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും ദിനപത്രങ്ങളിൽ ആണെങ്കിലും അല്ലെങ്കിൽ ടി വി ന്യൂസ് മുഖേനെയൊക്കെ ആണെങ്കിലും ഇൻറ്ററസ്റ്റോടുകൂടി വായിക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ ലോക് സഭ ടി വി രാജ്യ സഭ ടി വി ഒക്കെ ലോക് സഭാ രാജ്യ സഭാ ഇത് പ്രൊസീഡിങ്സ് നടക്കുന്ന സമയത്ത് ഇരുന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് വാർത്തയുടെ കാര്യത്തിൽ ഒത്തിരി താല്പര്യമെടുത്ത് വായിക്കാറുണ്ട് പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം പുതിയ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു പുതിയ പുതിയ മാറ്റങ്ങള് പറ്റി അറിയാൻ വലിയ താല്പര്യമുണ്ട് അത് വിദ്യാഭ്യാസത്തിൻ്റെതായ ന്യൂസ് വാർത്തകൾ വായിക്കുകയും അറിയുകയും ആൾക്കാരുമായിട്ട് പങ്കു വെക്കുവൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം വിദേശ വിദ്യാഭ്യാസം നല്ല രീതിയിൽ രാജ്യത്ത് ഒരു നല്ല നല്ല ഒരു രീതിയിൽ നമ്മുടെ കുട്ടികൾ പോവുന്നതുകൊണ്ട് വിദേശ വിദ്യാഭ്യാസത്തിനുള്ള പ്രത്യേകതകളും ഗുണങ്ങളും ദോഷങ്ങളും അതില് വരുന്ന സാമ്പത്തിക ബാധ്യതകള് കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങള് നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള വാർത്തകളൊക്കെ വരുന്നത് അത് ദിനപത്രത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയായിലാണെങ്കിലും അല്ലെങ്കില് ടി വി ന്യൂസുകൾളൊക്കെ ആണെങ്കിൽ തന്നെ ഈ വാർത്താ ചാനലിലൊക്കെ ആണെങ്കിൽ തന്നെയും അത് നന്നായിട്ട് ശ്രദ്ധിക്കുകയും വായിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട് കായികത്തില് എനിക്ക് താല്പര്യം ക്രിക്കറ്റിനോടാണ് പിന്നെ ബോട്ട് റേസിനോട് വള്ളം കളിയോട് നല്ല താല്പര്യമുണ്ട് വള്ളംകളിയെ പറ്റി വരുന്ന വാർത്തകൾ അതിൻ്റെ ഷെഡ്യൂള് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കില് ഓരോ സ്ഥലങ്ങളിൽ നടക്കുന്ന മൽസരങ്ങൾ അതേതെല്ലാം ടീമുകളതിൽ പങ്കെടുക്കുന്നുണ്ട് അത് ഏത് ആരാണവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അത് ഏത് ടൈമിനുള്ളില് ഓരോ മത്സരത്തിലോരോ വള്ളങ്ങള് ഓരോ ഹീറ്റ്സ് എത്ര ടൈമിനുള്ളില് ഫിനിഷ് ചെയ്തു വീണ്ടും നടക്കാൻ പോകുന്ന അങ്ങനുള്ള കാര്യങ്ങളെപ്പറ്റി ഒക്കെ ഒത്തിരി താല്പര്യങ്ങളുണ്ട് ശാസ്ത്രത്തില് ഇപ്പം പുതിയതായി വരുന്ന നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് മീഡിയായിൽ ഇലക്ട്രോണിക്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ശാസ്ത്രത്തിൽ ഉണ്ടാവേണ്ടിയിരുന്ന മാറ്റങ്ങളെപ്പറ്റി വായിക്കാനും അറിയാനും താല്പര്യമുണ്ട് പുതിയ പുതിയ പ്രത്യേകിച്ച് സോളാർ എനർജി അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങള് പിന്നെ സ്പേസ് ടെക്നോളജിയെ പറ്റി ഒക്കെയുള്ള കാര്യങ്ങളും ന്യൂസ് പേപ്പറിൽ വരുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് കുറ്റകൃത്യങ്ങൾ ക്രൈം കുറ്റകൃത്യ വാർത്തകള് ഒത്തിരി വായിക്കാറുണ്ട് കേൾക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് കുറ്റകൃത്യം ചില ചില എല്ലാവരുടെയും ശ്രദ്ധയെ പിടിച്ച് ഉലക്കുന്ന അല്ലേൽ എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചുലക്കുന്ന കുറ്റകൃത്യങ്ങൾ നടന്നാൽ അത് കൂടുതലായിട്ട് താല്പര്യം കാണിച്ച് വായിക്കുകയും അതിനകത്ത് വരുന്ന വാർത്തകള് ശരിയാണെന്നുള്ളത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും മൂന്നും നാലും ന്യൂസ് പേപ്പറുകൾ വായിക്കുക അല്ലേൽ വേറെ വേറെ മീഡിയ അതായത് വേറെ വേറെ സോഷ്യൽ മീഡിയായിലോ ഫേസ് ബുക്കിലോ വാർത്താ ചാനലുകളിലോ ടി വി ചാനൽകളൊക്കെ ആയിട്ട് സംസാരിച്ച് ശ്രദ്ധിച്ച് വാർത്തകൾ കേക്കാറുണ്ട് ആൾമോസ്റ്റ് ഭൂരിഭാഗ സമയവും എൻ്റെ കടന്നുപോകുന്നത് ഞാൻ കാണുന്ന ഒരു വിനോദം പോലെയാണ് വാർത്ത കേൾക്കുക എന്ന് ഉള്ളത് ഞാൻ എന്നെ കഴിവുടത്തോളവും നമ്മുടെ ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും ഉള്ള എല്ലാ മാറ്റങ്ങളെ അല്ലേൽ എല്ലാ ഡെവലപ്മെൻറ്റുകളും ആയിട്ട് ഞാൻ എന്നെ അപ്പ് റ്റു ഡേറ്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് വാർത്തകള് ഒത്തിരി നല്ല താല്പര്യമാണ് ഉള്ളത് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ പുതിയതായിട്ട് രൂപീകരിക്കപ്പെടുന്ന മുന്നണികള് മുന്നണിയിൽ നിന്ന് പിരിഞ്ഞു പോവുന്നത് അവ അത് എന്ത് കാരണങ്ങളാൽ പോയി അല്ലെൽ പുതിയ മുന്നണിയെ ഒരു മുന്നണിയിലേക്ക് ആകർഷിക്കാനുണ്ടായ കാരണം എന്താണ് അങ്ങനുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട് അങ്ങനുള്ള വാർത്തകൾകൊത്തിരി താല്പര്യം കാണിക്കാറുണ്ട് അതാണ് പൊതുവെ ചെയ്യാറുള്ളത്